ഏതൊരാളും കമ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതല്ലങ്കിൽ അവരുടെ ഇമോഷൻസ് കാണിക്കുന്നത് സ്വന്തം ഭാഷയിലൂടെയായിരിക്കും അത് മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഏതായാലും നമ്മളിപ്പോൾ ഏത് ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണങ്കിലും നമ്മുടെ ഇമോഷൻസായാലും കാര്യങ്ങളായലും നമ്മൾ പ്രകടിപ്പിക്കാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുക നമ്മുടെ സ്വന്തം ഭാഷയായിരിക്കും അത് ഇപ്പോൾ മലയാളികളുടെ കേസിലാണെങ്കിലും അങ്ങനൊക്കെ തന്നെയാണ് നമ്മൾ ഏതൊക്കെ ലാംഗ്വേജും ഏതൊക്കെ ഭാഷ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ആവശ്യം വരുമ്പോൾ അതല്ലങ്കിൽ നമ്മുടെ ഒരു ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ലൈഫിലൊരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക നമ്മൾ സ്വന്തം ഭാഷയായ മലയാളം തന്നെയായിരിക്കും നമ്മുടെ സ്വത്തും സ്വത്വ ബോധവും പ്രകടിപ്പിക്കാൻ നമ്മളുപയോഗിക്കുന്ന ഭാഷ തന്നെയായിരിക്കും